ഒൻമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എട്ട് ലക്ഷത്തി എൺമ്പത്തി എണ്ണായിരത്തി എൺമ്പത്തിയെട്ട് ഏഴു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി ഏഴുപത്തിയേഴ് ആറുലക്ഷത്തി ആറുപത്താറായിരത്തി അറുപത്താറ് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അമ്പത്തഞ്ച്